എന്ന് എങ്ങനെയാണ് പാചകം ചെയ്തു തുടങ്ങിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല എങ്കിൽപോലും ഓർമ്മയുള്ള ഏറ്റവും ആദ്യത്തെ ഒരു വിഭവം എന്ന് പറയുന്നത് എന്റെ മീൻ കറിയാണ് മീൻ കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഈ ചിക്കൻ കറികളൊക്കെ വറുത്തരച്ചിട്ട് വെയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിലൊക്കെ ചിക്കൻ കറി വറുത്തരച്ച് മല്ലിയും മുളകും വറുത്ത് അരച്ചിട്ട് അരച്ചിട്ട് എന്നുവെച്ചാൽ മിക്സിയിൽ അരച്ചിട്ടാണ് അവർ കറി വെക്കുന്നത് അപ്പോൾ എന്റെ വിചാരം മീൻകറിയും അങ്ങനെ തന്നെയാണ് വെക്കുന്നതെന്നാണ് അപ്പോൾ അമ്മ ഒരുതവണ മീൻ കഴുകി മീൻ കഴുകിയപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം മീൻകറി വെക്കണമെന്ന് അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മേ ഇത് ഞാൻ വെയ്ക്കാമെന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അപ്പം അമ്മ സമ്മതിച്ചു അതിൽനിന്ന് ഒരു കുറച്ച് എടുത്തിട്ട് എനിക്ക് തന്നു പരീക്ഷിക്കുന്ന പരീക്ഷണമല്ലേ ആദ്യം കുറച്ചിൽ നിന്ന് തുടങ്ങ് എന്ന് പറഞ്ഞു കുറച്ചെടുത്ത് തുടങ്ങ് എന്നിട്ട് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അളവുകൾ കൂട്ടാം ആദ്യം എടുക്കുമ്പം എല്ലാം കുറച്ചിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്താൽ മതിയെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് എടുത്തു എന്നിട്ട് തുടങ്ങി അന്നിട്ട് ഞാൻ എന്താ ചെയ്തേ ഈ ചിക്കൻ കറിവെക്കുമ്പോൾ വീട്ടിൽ എപ്പോഴും ഒരു ആഘോഷമാണ് അപ്പം അതേപോലെ ആഘോഷമാക്കിട്ട് വെക്കുമ്പോൾ നമ്മൾ എല്ലാവരും അറിയില്ലേ അതേപോലെ ഞാനും എന്ത് ചെയ്തു ചിക്കൻ കറി വെയ്കുന്നതു പോലെ ആണെന്ന് വിചാരിച്ചിട്ട് മീൻകറിയും അങ്ങനെ തന്നെ വെച്ചു അന്ന് വലിയ ആളായിട്ട് ആരോടും ചോദിക്കാണ്ട് വെച്ചതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെയധികം മോശമായ കറിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വെച്ചത് ആദ്യം വെച്ചത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം എന്നു പറയുന്നത് കാരണം ഞാൻ വെച്ചിട്ട് അത് വളരെയധികം അബദ്ധമായി പോയായിരുന്നു അതിനുശേഷം അമ്മ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് വറുത്ത് വെക്കും പക്ഷേ അത് ഇങ്ങനെയല്ല വറക്കുന്നത് ഇങ്ങനെ ഇഞ്ചമ്യും പച്ചമുളകൊക്കെ വറുത്തിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ എണ്ണയിൽ വാട്ടിയിട്ടു ആ വാട്ടിയ എണ്ണയിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ വാട്ടിയ എണ്ണയിലേക്ക് കുറച്ചു മുളക്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അല്ലാണ്ട് ഇത് വറുത്തിട്ടരക്കാൻ പാടില്ല അരച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് അടിക്കുമെന്ന് പറഞ്ഞുതന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് മറ്റുള്ളവർ പറഞ്ഞുതരുന്നത് അതിന്റെ എന്താ പറയുക ഇംപോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ എന്ത് കറിവെച്ചാൽ ആദ്യമായി ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് അറിയുന്ന ആൾ ആ ഭക്ഷണമുണ്ടാക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളോട് ഞാനൊന്ന് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നതെന്ന് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കാൻ ഓർക്കുമ്പോൾ ചിരി ആണെങ്കിലും ചെയ്തത് ചെയ്ത പൊട്ടത്തരത്തെ കുറിച്ച് ഓർത്തു ചിരി വരുമെങ്കിലും ഓർത്തെടുക്കുന്നത് ഞാൻ അതാണ് ഏറ്റവും ആദ്യം അതായത് ഈ പപ്പടം പൊരിക്കും പിന്നെ ഓംലെറ്റ് അടിക്കുമെന്നത് എന്ന് അല്ലാതെ ആദ്യമായിട്ട് ചെയ്തത് ആ മീൻ കറിയായിരുന്നു ആ മീൻ കറി എട്ടു നിലയിൽ പൊട്ടി പോയി എങ്കിൽപോലും ഓർക്കുമ്പോൾ ഇപ്പോൾ അതൊരു രസമാണ്